ഇന് ഇതുവരെ എനിക്ക് നേരിടേണ്ടിവന്നതൊരു പുസ്തകത്തിന് ബെന്ന്യാമിന്റെ ആടുജീവിതം ഒരു പുസ്തകം ഒരാളുടെ പ്രവാസി ജീവിതത്തിന്റെ കഥകൾ ആ പ്രവാസി ജീവിതത്തിന്റെ അതിജീവനത്തിന്റെ കഥ നമുക്ക് വായിക്ക് എനിക്ക് വായിക്കാന് മനസ്സിലാക്കാന് സാധിച്ചു അതു വായിച്ചതിലൂടെ എനിക്ക് നമ്മുടെ കുടുംബമായ സുഹൃത്തുക്കളുമായിട്ടെനിക്കത് ചര്ച്ച ചെയ്യാനായിട്ട് അന്നവർ നേരിട്ട പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ തരണ് എല്ലാം തരണം ചെയ്യാന് സാധിച്ച അതിനെ തരണം അതിജീവന് അതിജീവിച്ചെത്തിയതിന്റെ സാഹസികമായിട്ട് അദ്ദേഹത്തിന്റെ അതിജീവനത്തെക്കുറിച്ച് അതൊരനുഭവം അത് പങ്കു വെയ്ക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്